ഞാൻ ഫേസ്പാക്കിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ ഫ്രണ്ട് എൻ ഇന്നോട് പറഞ്ഞു ഒരു ഹിമാലയേൻ്റൊരു പ്രോഡക്റ്റ്ണ്ട് നല്ല റിസൾട്ടുണ്ട് മുഖം നന്നായി വെളുക്കും മുഖത്തുള്ള പാടുകളൊക്കെ പോകും നല്ല തിളക്കൊള്ള മൊഖായിട്ട് മാറും അവള് യൂസെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റെക്കമൻ്റ് ചെയ്തു അങ്ങനെ ഞാന് ഓൺലൈനില് ബുക്ക് ചെയ്തു ഓൺലൈനില് ബുക്ക് ചെയ്തു മേടിച്ച് വീട്ടില് വന്നപ്പോൾ ആഴ്ചയില് ഒരു ദിവസം തേക്കാനാണ് അവര് പറഞ്ഞത് അര മണിക്കൂർ മുഖത്തു തേച്ചു പിടിപ്പിക്കാനാണ് പറഞ്ഞത് അങ്ങനെ അര മണിക്കൂറ് ഞാൻ മുഖത്തു തേച്ച് പിടിപ്പിച്ചു അങ്ങനെ അര മണിക്കൂറ് കഴിഞ്ഞു മുഖം നന്നായി കഴുകി നോക്കു കഴുകി പിന്നീട് അന്ന് രാത്രി തന്നെ മുഖം നന്നായി ചൊറിയാൻ തുടങ്ങി പിന്നെ കുരുക്കളും കുരുക്കള് പിംപിൾസ് ഒക്കെ മൊഖത്ത് വരാൻ തുടങ്ങി അങ്ങനെ നിറച്ചും പിംപിളും ഭയങ്കര ചൊറിഞ്ഞിക്കാണ്ട് മുഖമൊക്കെ നല്ല തടിച്ചു വരുന്നുണ്ടായിരുന്നു അതേപോലെതന്നെ മുഖത്തുള്ള പാടുകളൊന്നും പോയതും ഇല്ല നല്ല വിലയുള്ള ക്രീമായിരുന്നു അങ്ങനെ ആ ക്രീമു തേച്ചിട്ട് ഒരു മാറ്റവും തോന്നിയിട്ടില്ല